മലയാള ഭാഷയില് അതായത് ഇന്ന് തിരിച്ചുവരണമെങ്കില് ഇവിടെ തന്നെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോന്ന് വച്ചിട്ടുണ്ടെങ്കില് പണ്ട് കാലങ്ങളിലൊക്കെ അതായത് പണ്ട് കാലം അല്ല കുറച്ചു കാലം മുന്നേ അതായത് എൻ്റെ കുട്ടീനെ ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പിന്നെ ഇപ്പമൊക്കെ അവൾക്ക് മലയാളം അത്യാവശ്യം നല്ലൊണം അറിയാം മലയാളം അല്ല ഇഗ്ലീഷ് ഒക്കെ അപ്പം അവളെ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു വിട്ടത് അപ്പം മെയിനായിട്ടെന്ന് വച്ചിട്ടുണ്ടെങ്കില് ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടുമ്പം അവര് കൂടുതലായിട്ടും പഠിപ്പിക്കാൻ ശ്രമിക്കുക ഇംഗ്ലീഷ് ആണല്ലോ മലയാളത്തിനേക്കാളും അപ്പം പൊതുവെ ഇപ്പം നേരിടുന്ന ഒരു പ്രശ്നമെന്തെന്നു വച്ചിട്ടുണ്ടെങ്കില് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ പഠിപ്പിക്കുമ്പം ആ കുട്ടിക്ക് കൂടുതലായിട്ടും മലയാളം പറയാനുള്ളൊരു ഇതുണ്ടാവില്ല അതായതെന്നച്ച അവർക്കു ഇന്ട്രെസ്റ് ഉണ്ടാവില്ല മലയാളത്തിനോട് അതായത് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾക്ക് ആ ടീച്ചർമാരാണെങ്കിൽ ഇംഗ്ലീഷ് തന്നെ പഠിപ്പിക്കും ചെയ്യാം അപ്പം വീട്ടിൽ വന്നിട്ടാണ് എന്നോടിങ്ങനെ ചോദിക്കും അതായത് അവൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം അറിയായിരിക്കും അപ്പം എന്നോട് പറയും അമ്മ ഇതിൻ്റെ മലയാളം പറഞ്ഞു തരുവോന്നു ചോദിക്കും അപ്പം ഞാന് പിന്നെ ആ ഇംഗ്ലീഷ് വായിച്ചിട്ട് അവൾക്ക് കറക്റ്റ് മലയാളം പറഞ്ഞു കൊടുക്കും അതേപോലെ അത് എഴുതാനും അവളെ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് കാരണമെന്തെന്നു വെച്ചാൽ മലയാളം അറിയില്ലാന്നു വെച്ചാൽ നമുക്ക് വലിയൊരു നാണക്കേട് തന്നെയാണല്ലോ മലയാളമെന്നു പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷയാണല്ലോ അപ്പം എന്തെന്ന് വെച്ചാൽ ഞാൻ അവളെ അങ്ങനെ പഠിപ്പിക്കും അതാണെനിക്കുണ്ടായൊരു അനുഭവം